ഹലോ ആരാ അതെയല്ലോ ആ എന്നാ ചേച്ചി ഹലോ ആ സ്ഥലം എന്നാത്തിനാ ചേച്ചീ പിന്നെ കൃഷിക്ക് വേണ്ടീട്ടാണോ അതോ

ആണോ ആ ആ ആ വീട് വെക്കാനുള്ള സ്ഥലം ആ അങ്ങനെയുള്ള ഇത് വേണം അല്ലേ ഉം അപ്പം എത്ര സെൻഡാണ് ചേച്ചി ഉദ്ദേശിക്കുന്നത് അപ്പം ആ ഇവിടെ നമുക്ക് കിഴക്കോട്ട് സ്ഥലം കിട്ടും പക്ഷെ സ്ഥലം കിഴക്ക് സ്ഥലമുണ്ട് പക്ഷെ ഇതൊരു നാല് ലക്ഷം രൂപയൊക്കെയാവും സെൻറ്റിന് കേട്ടോ ഉം ഉം സെൻറ്റിനൊരു നാല് ലക്ഷം രൂപയൊക്കെ വെച്ചാവുന്നുണ്ട് ഇപ്പം നിങ്ങൾക്ക് വീട് കൂടെ വെക്കാൻ വേണ്ടീട്ടാവുമ്പം അതനുസരിച്ച് നല്ല സ്ഥലം വേണമല്ലോ കൃഷിക്കാവുമ്പോഴത്തേക്ക് ഇച്ചിരി താഴ്ന്ന സ്ഥലമാണ് കിഴക്ക് ആ അന്നേരമിപ്പോൾ റോഡ് റോഡ് സൗകര്യം വണ്ടി വരുന്ന സ്ഥലവും വണ്ടിയൊക്കെ വരുന്ന സ്ഥലമൊക്കെ ആവുമ്പോഴത്തേക്ക് ശകലം റേറ്റ് കൂടും ചേച്ചി നാലു ലക്ഷമൊക്കെ വെച്ചാവും പിന്നെ അല്ലാതെ നമുക്ക് കൃഷിക്ക് വേണ്ടിയിട്ട് ഇന്ന താണ സ്ഥലമാണെങ്കിൽ കുറച്ചുകൂടെ റേറ്റ് കുറയ്ക്കാമായിരുന്നു പക്ഷേ ഇതിപ്പം നാലു ലക്ഷം രൂപയൊക്കെയാവുമല്ലോ സെൻറ്റിന് അപ്പം ഇരുപത് സെൻ്റ് സ്ഥലം വേണമല്ലേ ഉം ഉം അപ്പം ഈ മൂന്നാലു ലക്ഷം രൂപയൊക്കെയായാൽ കുഴപ്പമുണ്ടോ അതെ ആ ഇല്ല നമുക്കിപ്പോൾ ഒരു വീടൊക്കെ വച്ച് താമസിക്കാനും പിന്നെ വീട് വെക്കാനുമുള്ള സാധനങ്ങളൊക്കെയിറക്കാനുള്ള സൗകര്യമുള്ള സ്ഥലം വേണമല്ലോ എല്ലാം വേണമല്ലോ ആ നിരപ്പായ ഇങ്ങനെ പ്ലോട്ടായിട്ടു കിടക്കുന്ന സ്ഥലം തന്നെ തരാം അത് പത്തിരുപത് സെൻ്റ് സ്ഥലമായിട്ട് കിടപ്പുണ്ട് ഇപ്പം നിങ്ങൾക്ക് കൃഷിക്ക് വേണ്ടീട്ടായിരുന്നെങ്കിൽ ഇച്ചിരി താണ സ്ഥലം നോക്കിയാൽ മതിയായിരുന്നു ഇപ്പം നമുക്ക് വീടുകൂടെ വെക്കേണ്ട ഒരു സൗകര്യമായതുകൊണ്ട് ആ ഇച്ചിരി പൊക്കവുള്ള സ്ഥലം തന്നെ നോക്കേണ്ട സ്ഥിതിക്ക് ഒരു ഇപ്പം മൂന്ന് നാലു ലക്ഷം ഒരു വിധമൊക്കെ ആവും പിന്ന റേറ്റ് കുറയ്ക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല സ്ഥലം വേണം നമ്മൾക്ക് വണ്ടിയൊക്കെ വരുന്ന സ്ഥലമൊക്കെ വേണ്ടേ ഉം അപ്പം അങ്ങനെയായാലും കുഴപ്പമില്ലല്ലേ ആ ഉം ആ ഉം ആ നിങ്ങൾക്ക് എന്നാ സൗകര്യമുള്ളതെന്ന് പറയുകയാണെങ്കിൽ ഒരു ദിവസം നമുക്ക് പോയി നോക്കി നിങ്ങൾക്ക് സ്ഥലം ഇഷ്ടപ്പെട്ടെങ്കിലേ ആ ആ ശരി അപ്പം എന്നാൽ അടുത്ത മാസം പകുതി ഇടയിൽ നിന്നും നിങ്ങളുടെ സൗകര്യാർത്ഥം പറഞ്ഞാൽ മതി ഞാൻ റെഡിയാ വന്ന് നോക്കാം കേട്ടോ ആ ശരിയെന്നാൽ ആ ശരിയെന്നാൽ ഓക്കെ ഓക്കെ